അ ഞാനൊരു പത്ത് ദിവസം മുമ്പ് ഒരു ചെരുപ്പ് ഓർഡർ ചെയ്തിരുന്നു ഒരു ഫ്ലാറ്റ് ചെരുപ്പാണ് ഇന്നലെ ആണ് പക്ഷേ അത് ലഭിച്ചത് ഇന്നലെ വന്ന് ഇന്നലെ കിട്ടി കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇട്ടു നോക്കുമ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിള്ളല്ല കാരണം എൻ്റെ സൈസ് അല്ല ഞാൻ അതിൽ ഓർഡർ ചെയ്യുമ്പോൾ എട്ടായിരുന്നു സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഞാനത് ഇട്ടു നോക്കി ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പാകമല്ല ഒട്ടും ചെറുതാണ് എൻറെ സൈസല്ല അതുകൊണ്ടാണ് ഏഴാണ് എനിക്ക് കിട്ടിയ ചെരുപ്പിൻ്റെ സൈസ് എഴാണ് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ എൻ്റെ സൈസ് എട്ടാണ് ഇന്നലെ ഞാൻ ഇട്ട് നോക്കിയപ്പോഴാണ് ഭയങ്കരായിട്ട് ചെറുതാണ് എനിക്ക് ഒട്ടും ഇടാൻ പറ്റുന്നില്ല അത് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ എട്ടുതന്നെ ആയിരുന്നു കൊടുത്തത് പക്ഷേ പിന്നെങ്ങനാ മാറിയതെന്ന് അറിയില്ല അതെനിക്കൊന്ന് റീഫണ്ട് ചെയ്യണമായിരുന്നു പോരാത്തതിന് അതിൻ്റെ ക്വാളിറ്റി തീരെ ഒട്ടും നല്ലതല്ല വളരെ മോശമാണ് ഇടുമ്പോൾ തീരേ ഒരു ബലം ഇല്ലാ അതിട്ട് നോക്കുമ്പോൾ അതെനിക്കൊന്ന് റീഫണ്ട് ചെയ്യണമായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചത്